എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം അത്ര പോര എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം അത് നമ്മുടെ ഇവിടത്തെ സംവിധാനം നല്ലതാണെങ്കിൽ ഇപ്പോൾ കാശുള്ളവരൊന്നും പുറത്തുപോയി ചികിത്സ തേടില്ലല്ലോ അവർ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഹോസ്പിറ്റലുകളെ അല്ലേ ആശ്രയിക്കുകയുള്ളൂ ഇതിപ്പം മരുന്നിനായിട്ടാണെങ്കിലും പിന്നെ എന്തോന്നാണ് ചികിത്സയ്ക്ക് ആയിട്ടാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളെ പലരും ആശ്രയിക്കുന്നുണ്ട് പിന്നെ കാശൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാവരും അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് പോകുന്നത് പലരും പ്രൈവറ്റായിട്ട് പോവും പലരും ഗവൺമെൻ്റ് ആശുപത്രികളിൽ പോവും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആശുപത്രികളൊക്കെ എന്ന് പറഞ്ഞാൽ ആശുപത്രികളും ക്ലിനിക്കുകളും ഒക്കെ പഴയ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളത് വച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പവില്ലാത്ത ചുറ്റു ചുറ്റുപാട് തന്നെയാണുള്ളത് കാരണം പിന്നെ ഇപ്പോയൊക്കെ പോയിരുന്നാലും ഇത്തിരി വൃത്തിയുണ്ട് പിന്നെ നഴ്സുമാരൊക്കെ വലിയ കുഴപ്പവില്ലാത്ത രീതിയിൽ ഇടപെടാറുണ്ട് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആശുപത്രി പോവുമ്പോഴത്തേക്കുമൊക്കെ അവരൊക്കെ ചില നഴ്സ്മാരൊക്കെ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് നിൽക്കുന്നത് അറ്റൻഡർമാർ അങ്ങനെയാണ് പിന്നെ കാശു കൊടുക്കുന്നവരെ അവർ നോക്കുകയുള്ളു പിന്നെ വൃത്തിയെന്ന് പറയുന്നതാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു നമുക്ക് പോയാൽ ഒന്ന് ടോയ്ലറ്റിൽ പോലും കയറാൻ തോന്നില്ല അത്ര വൃത്തിഹീനമായിരുന്നു വൃത്തിയാക്കാനൊക്കെ ആളുണ്ടെങ്കിലും അവർ അതൊന്നും കൂടുതൽ വൃത്തിയാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷേ ഇന്ന് പോകുമ്പം അങ്ങനെയല്ല ഇന്ന് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് വൃത്തിയുണ്ട് അവരുടെ ഇടപെടൽ കൊള്ളാം പിന്നെ നല്ല രീതിയിലുള്ള ചികിത്സകൾ കിട്ടാറുണ്ട് മിക്കവാറും മരുന്നൊക്ക കിട്ടാറുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചിലപ്പഴ് മാത്രമേ പുറത്തു നിന്ന് എഴുതിതരാറുള്ളൂ അതും നമ്മളെ പോലെ പാവപ്പെട്ടവർകൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ അത്യാവശ്യത്തിന് വാങ്ങിച്ചല്ലേ പറ്റൂ അസുഖം വന്നാൽ ചികിത്സ ചികിത്സിക്കണ്ടേ പിന്നെ ഇപ്പഴ് നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യേണ്ടത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് കാരണം ശുചിത്വം തന്നെ ഇപ്പോഴും ഹോസ്പിറ്റലുകളിലെന്ന് പറഞ്ഞാൽ ഈ ക്ലീനേഴ്സ് മാത്രം ചെയ്യുക എന്തിന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഇപ്പം രോഗികൾക്ക് അല്ലേ ക്ലീൻ ചെയ്യാൻ പറ്റാതെയുള്ളൂ അവർ പോയതിനു ശേഷം വേണമെങ്കിൽ കൂട്ടിരിപ്പുകാർക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ആ ടോയ്ലറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും പിന്നെ അവരൊന്നും അത് ചെയ്യാറില്ല അപ്പോൾ ഒരാൾ മടി കാണിക്കുമ്പോഴത്തേക്കും പിന്നെ അത് വൃത്തികേടാവും പിന്നെ അടുത്ത വരുന്ന ആൾ വിചാരിക്കും ഞാൻ എന്തിന് അത് ചെയ്യുന്നത് മറ്റേ ആൾ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ അങ്ങനെ വരുമ്പോൾ വൃത്തിഹീനം വൃത്തികേടാവുന്ന കൂടുകയല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ഒത്തു ശ്രമിച്ചാൽ തന്നെ ആശുപത്രികളൊക്കെ നമുക്ക് വലിയ കുഴപ്പവില്ലാത്ത രീതിയിൽ വൃത്തിയാക്കി കൊണ്ടു പോവാൻ സാധിക്കുകയുള്ളൂ പിന്ന ചെലവുകളാണെങ്കിൽ ഗുളികക്കും മരുന്നിനുമൊക്കെ പുറത്തു നിന്നെഴുതി തരുമ്പോഴാണെങ്കിൽ കാശൊന്നും ഇല്ലെങ്കിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്നാലും ആരേന്നെങ്കിലും കടമെങ്കിലും വാങ്ങിച്ച് വാങ്ങിക്കും കാരണമെന്ന് പറഞ്ഞാൽ അസുഖം മാറുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാലല്ലേ നമുക്കും ജോലിക്ക് പോവാനോ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ പിന്നെ പിന്നെ ക്യൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ഇതായിട്ടാണ് വച്ചേക്കുന്നത് ഓപിയിൽ രണ്ട് സെക്ഷനായിട്ടാണ് വച്ചേക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ പോവും പിന്ന നീണ്ട ക്യൂവൊക്കെ വരുമ്പം ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ രോഗികളാകെ ഇതായി പോവും അതുകൊണ്ട് രോഗികൾ മാത്രമായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്യൂ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ബൈസ്റ്റാൻഡേർസ് ഉണ്ടെങ്കിൽ അവർ നിന്ന് വാങ്ങിച്ചോളും പക്ഷേ അല്ലാതെ രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അതു കൊള്ളാമായിരുന്നു പിന്നെ വേറെ വേറെ ആശുപത്രി കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാരും അങ്ങനെ തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല രീതിയിലുള്ള ഇടപെടലുകളാണ് നല്ല സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം ഉണ്ട് പിന്നെ കറക്റ്റ് ആയിട്ട് പരിശോധിച്ചു നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട് മിക്ക ഡോക്ടർമാരും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിനു ശേഷം തന്നെയാണ് മരുന്ന് എഴുതി തരാറുള്ളത് പിന്നെ ചിലരാണെങ്കിൽ അതൊന്നും നോക്കില്ല അവർ നമ്മളെ കാണുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നതിനിടയ്ക്ക് അവർ മരുന്ന് എഴുതിത്തരും അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല അതുകൊണ്ട് അത് കുറച്ചും കൂടെ ഇവരൊക്കെ ശ്രദ്ധിച്ചിരുന്നു കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു നമ്മൾ അസുഖം വരുമ്പോഴല്ലേ ഇവരെ കാണാൻ പോണത് അപ്പോൾ നമ്മൾ അല്ലാതെ അവരെ വിസിറ്റ് ചെയ്യാൻ പോണതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ കേട്ട് നമുക്ക് നല്ല രീതിയിൽ മരുന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എനിക്ക് എപ്പോഴും അങ്ങനെയാണ് തോന്നാറുള്ളത് പിന്നാ പിന്ന കുറച്ചു കൂടെ നല്ല രീതിയിൽ ആശുപത്രികൾ ഗവൺമെൻ്റ് ആശുപത്രികൾ കൂടുതൽ നല്ല രീതിയിൽ സജ്ജീകരിക്കുകയാണെങ്കിൽ ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ ഗവണ്മൻ്റ് ആശുപത്രിയെ തന്നെ ആശ്രയിക്കുമെന്നാണ് എനിക്ക് തോന്നണത് അവിടത്തെ പല ചികിത്സ സൗകര്യങ്ങളും ഇല്ലാതെ വരുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് രോഗം മാറിയല്ലേ പറ്റൂ എന്ന് വിചാരിച്ചാണ് അവർ മറ്റുള്ള ഹോസ്പിറ്റലുകൾ തേടണത് ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്